ഞാൻ ഒരു കോൺടാക്ട് വർക്കറാണ് അപ്പം വീടുപണിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വിലകുറഞ്ഞ് കിട്ടാൻവേണ്ടി പുറത്ത് പോകാറുണ്ട് അതുപോലെ ടൈല് ക്ലോസെറ്റ് വയറ് സ്വിച്ച് അങ്ങനെ കുറെ സാധനങ്ങൾ ആവിശ്യവരുമ്പോൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഞങ്ങള് പുറത്തുപോയിട്ടാണ് അധികവും എടുക്കുന്നത് ഇവിടെ വില വെച്ച് നോക്കുമ്പോൾ കുറച്ചുംകൂടി ലാഭം പുറത്തിന്ന് തന്നെ ആയിരിക്കും അതുപോലെ പുറത്തിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടില് കേറ്റിവിടലും കാര്യങ്ങളൊക്കെ ട്രാവലിംഗൊക്കെ അവര് കറക്റ്റാക്കി തരുന്നൂണ്ട് വിലയില് തന്നെ മാറ്റവും വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ അവരുടെ ഭാഗത്തിന്ന് നമുക്ക് പുറത്ത് പോയിക്കഴിഞ്ഞാൽ കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് മാത്രം പുറത്തുകഴിഞ്ഞ ഞങ്ങള് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ പുറത്തുപോവാറുണ്ട്